കൂടുതൽ പരിപാടികളിൽ ഞങ്ങൾ പാടുന്നത് പള്ളിയിലാണ് പള്ളിയിൽ ഗായകസംഘത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ തലേന്ന് ഒരുപാട് പരിപാടികൾ വെയ്ക്കുക അതിൽനിന്ന് പാട്ടുപാടുക കൈയ്യടി നേടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാട്ടുപാടുന്ന ഒരു വ്യക്തികൂടെയാണ് കാരണം നല്ല നല്ല പാട്ടുകൾ കേൾക്കുകയും അത് ആസ്വദിക്കുകയും നല്ല നല്ല സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് നല്ലത് മാത്രമേ എനിക്ക് കാണുവാൻ ഇഷ്ടമുള്ളൂ അതുപിന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ രാത്രിയിൽ പാട്ട് ഒരുപാട് പാട്ടുകൾ ചാനലിൽക്കൂടെ വരുന്നുണ്ട് അതെനിക്ക് കേൾക്കാനും ആസ്വദിക്കാനും ഒക്ക ഇഷ്ടമാണ് ഞാൻ വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ ഉറക്കെ ഇപ്പം പ്രാർത്ഥിക്കും കാരണം ഞങ്ങൾ എട്ട് മക്കളാണ് അച്ചാച്ചനും അമ്മച്ചിയും എല്ലാം കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പാടും ആ പാട്ട് കേൾക്കുമ്പോൾ അക്കരെനിന്ന് മുഴുവൻ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിറ്റേന്ന് പറയും നിങ്ങളുടെ പാട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ ആസ്വദിച്ച് ഇനിയും പാടണം കേട്ടോ അങ്ങനെ അച്ചാച്ചന് നിർബന്ധമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് പാട്ട് പാടണമെന്ന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഞങ്ങൾ ഗ്രൂപ്പിൽക്കൂടെ പാട്ട് പാടുന്നുണ്ട് അതുകൂടെ ഞാൻ ചെന്നാഗിരി സ്കൂളിൽ പഠിച്ചു സ്കൂളിൽ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കൂടെ ഞാൻ പാട്ടിട്ട് അയച്ചുകൊടുക്കും അവർക്കൊക്ക ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് പാട്ട് പാടാനും ഇഷ്ടമാണ് പാടിയിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങളുടെ പള്ളികളിലും എല്ലാ കാര്യങ്ങളും ഇപ്പം ഓണാഘോഷം വരുന്നു ഓണാഘോഷത്തിന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടുന്നുണ്ട് സിംഗിൾ പാട്ട് പാടുന്നുണ്ട് അതിനൊക്കെ ഞാൻ പേര് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് കലാ മത്സരത്തിലൊക്കെ ഞങ്ങൾ അതുപോലെത്തന്നെ ഞങ്ങളുടെ ഫൊറോനാ മത്സരത്തിന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടിയിട്ടുണ്ട് അതുപോലെത്തന്നെ ചങ്ങനാശ്ശേരിയിൽ പോയി ഞങ്ങൾ പാടിയിട്ടുണ്ട് അങ്ങനെ പാട്ടുകൾക്കും ഭയങ്കര ആഗ്രഹവുമാണ് പാടാനായിട്ട് പിന്നെ പ്രായമായി ശബ്ദമൊക്കെ അടയാൻ തുടങ്ങിയപ്പോൾ എന്നാലും ഗ്രൂപ്പിൽ കയറും സിംഗിളായിട്ട് ഇപ്പം പാടാനായിട്ട് പറ്റുന്നില്ല ഒച്ചയൊക്കെ അടയ്ക്കുന്നുണ്ട് ഇന്ന് പാട്ട് ആസ്വദിക്കാൻ ഇഷ്ടമാ അതുകൊണ്ട് ഞാൻ ഏത് ചാനലിൽ വന്നാലും പാട്ടേ ഞാൻ വെയ്ക്കത്തുള്ളൂ പാട്ടിനോട് അതുപോലെ ഇഷ്ടമാണ് അങ്ങനെ ഏതെല്ലാം അതുപോലെ ചാനലിൽക്കൂടെ നമ്മൾ അവർ കളിക്കുന്നതും പാടുന്നതും ആസ്വദിക്കുന്ന ആളാണ് ഞാനും അതുകൊണ്ട് പാട്ടിനോട് അന്നും ഇന്നും ഇഷ്ടമാണ് എന്നും ഇഷ്ടപ്പെടാൻ ഞങ്ങൾ അതുപോലെ വീട്ടിലെല്ലാവർക്കും പാട്ടെന്നു പറയാൻ എല്ലാവരും ഒരുമാതിരി പാടുന്നതാണ് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയുമെല്ലാം ഞങ്ങൾ ഭയങ്കര പാട്ടിട്ട് മക്കളും എല്ലാം കുടി ചേർന്ന് പാടുമ്പോൾ അതൊരു ഭയങ്കരമായിട്ടാണ് അതിനൊക്കെ അതുപോലെയാണ് ഞങ്ങളെ വളർത്തിയത് കാരണം പ്രാർത്ഥന കഴിയുമ്പോൾ രണ്ട് പാട്ട് മൂന്ന് പാട്ട് പാടണമെന്ന് എൻ്റെ അച്ചാച്ചന് നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ പാട്ടുപാടി പിന്നെ അതുപോലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിച്ച് വിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയും പാടും പിന്നെ ഞങ്ങൾ കൊച്ചുകുട്ടികളൊക്ക സൺഡേ സ്കൂളിൽ കുട്ടികളില്ലാത്തപ്പോൾ ഞങ്ങൾ മാതാക്കൾ നിന്ന് പാടും അങ്ങനെ പിന്നെ പള്ളിയിൽ പാടാൻ ഒരുപാട് അനുവാദം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ഇരുന്നും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് പാടി അങ്ങനെ ഒരുപാട് ആസ്വാദിച്ച ആളാണ് ഞാനും എൻ്റെ മക്കളാണെങ്കിൽ എന്നെ എല്ലായിടത്തും വിടാനും ഇഷ്ടമാണ് അങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കും എന്നെ വിടും അമ്മ എല്ലാത്തിനും ചേരണം എല്ലാത്തിനും പങ്കെടുക്കണം എന്നുപറയും വീട്ടിൽത്തന്നെ കുത്തിയിരിക്കരുത് അമ്മ ഒരുപാട് ആസ്വദിക്കണം എന്നൊക്കെ എൻ്റെ മക്കൾക്കിഷ്ടമാണത് അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും അവർ എന്നെ വിടുകയും ചെയ്യും ഞാൻ പോകുകയും ചെയ്യും അങ്ങനെ നല്ല ഒരു ആസ്വാദകയും പാട്ടു പാടുന്നയാളും കൂടെയാണ് ഞാനും അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്കുവേണ്ടി പാട്ട് പാടുന്നുണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് അത് എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടും ഞങ്ങളെല്ലാം കയറിപ്പാടും ഗ്രൂപ്പായിട്ട് കയറിപ്പാടും അതുപോലെത്തന്നെ ഞങ്ങളുടെ പിന്നെ ഇതും വരുകയാണ് ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വരുകയാണ് ഞങ്ങളുടെ ജൂബിലിയാണ് ഡിസംബർ ജനുവരിയോടുകൂടി ഞങ്ങളുടെ ജൂബിലി അവസാനിക്കുകയാണ് അപ്പം ഞങ്ങൾ പാട്ട് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഗ്രൂപ്പായിട്ടുള്ള പാട്ടുകൾക്ക് ഞാനുണ്ട് അതുപോലെ ഞങ്ങളുടെ എല്ലാ പാട്ടുകളോടും ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അതുപോലെ ഡാൻസ് ചെയ്തു പാട്ടുപാടുന്നവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ചാനലിൽക്കൂടെ ഇത് എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കും ദിവസവും ഞാൻ ഒരു പത്ത് പാട്ടെങ്കിലും കേൾക്കാതെ ഞാനിരിക്കുകയില്ല അതുപോലെ ഞാൻ വെറുതെ ഞാൻ മൊബൈലിൽ പാട്ട് പാടി അയച്ചുകൊടുക്കും അവർക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടും അല്ലാതെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഉറക്കെ പാട്ടുപാടും എന്നിട്ട് ഞാൻ അത് കുരിശ് ഇതിന്റെ അകത്തിട്ട് എല്ലാവർക്കും അയച്ചുകൊടുക്കും അവരൊക്കെ പറയും നന്നായിട്ട് പാടുന്നുണ്ട് ഇനിയും പാടണം ഇനിയും പാടണം ഇനിയും ഞങ്ങൾക്ക് അയച്ചുതരണം എന്നു പറയും അങ്ങനെ ഞങ്ങൾ നല്ല പാട്ടുകാരായിട്ട് കാരണം ചെറുപ്പം മുതലേ ഞങ്ങളെ അതുപോലെയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഒരുമാതിരി പാടുന്നതായതുകൊണ്ട് ഞങ്ങളെ പാട്ട് പാടാനായിട്ട് വിളിക്കും അന്നൊക്കെ സെറ്റിങ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നിന്നു ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരുമിച്ചുനിറുത്തി ഞങ്ങൾ എല്ലാവരും കൂടെ പാടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ലതായിട്ട് പാടിയിരുന്നു അനിയത്തിയൊക്ക നന്നായിട്ട് പാടുന്ന ഓരു വ്യക്തിയാണ് അതുപോലെ ഞങ്ങൾ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും പാട്ട് പാടും ഞങ്ങളുടെ പള്ളിയിലെ ഗായകസംഘത്തിലും ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞു പിന്നെ അത് കുറച്ചു കൂടെയൊക്കെ ഏജ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും കൂടുതൽ പാട്ട് പാടാൻ തുടങ്ങി